പാലക്കാട് ജില്ലയിൽ പൊതുവേ എല്ലാ ജോലിയും എല്ലാവരും ചെയ്യാറുണ്ട് ഇപ്പോൾ പാരമ്പര്യമായിട്ട് കുടുംബത്തിന് കുടുംബസ്വത്ത് എന്നൊക്കെ പറയണപോലെ കുടുംബ സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും പിന്നെ പുതിയൊരു ബിസിനസ്സിലോട്ടോ ഇല്ലെങ്കിൽ വേറെ ജോലിയിലേക്കോ ഗവൺമെന്റ് ജോലിയിലേക്കൊന്നും പോകാറില്ല അവർ അവരുടെ ആ പാരമ്പര്യമായിട്ടുള്ള കുടുംബസ്വത്ത് നിലനിർത്തി കൊണ്ടുപോവാനും അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ ആണോ എല്ലാവരും ശ്രദ്ധിക്കാറുള്ളത് കൂടുതൽ പേരും പിന്നെ അങ്ങനെ കുടുംബസ്വത്ത് ഇല്ലാത്തവരാണ് പുതിയ ബിസിനസ്സ് ബിസിനസ്സിന് ബിസിനസ്സ് ചെയ്യാനുള്ള ആസ്തി ഉള്ളവർ ബിസിനസ്സ് പുതിയ ബിസിനസ്സ് ചെയ്യും അത് ആ ബിസിനസ്സ് വളർത്തി കൊണ്ടു വരാനും പുതിയ സ്റ്റാർട്ടപ്പുകളിലൂടെയൊക്കെ വരുമാനം കണ്ടെത്താനൊക്കെ കുറച്ചു പേർ ശ്രദ്ധിക്കാറുണ്ട് അതേപോലെ അങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്യാനൊന്നും ആവാത്തവർ അത് പഠിക്കും പഠിച്ചിട്ട് നല്ല ഗവൺമെന്റ് ജോലി മേടിക്കാനും കൂടുതൽ പേര് ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഗവൺമെന്റ് ജോലികൾക്കൊക്കെ അപര്യാപ്തത മൂലം തന്നെയാണ് എല്ലാവരും ഗവൺമെന്റ് ജോലി ഗവൺമെന്റ് ജോലി പറയുന്നുണ്ടെങ്കിലും ആ ഒരു പവറിന് വേണ്ടി മാത്രമാണ് ഗവൺമെന്റ് ജോലി പക്ഷേ വരുമാനം കിട്ടുന്ന ഒരുപാട് മാർഗ്ഗങ്ങൾ അതിൽ ഗവൺമെന്റ് ജോലിയെക്കാളും കൂടുതൽ വരുമാനം കിട്ടുന്ന ജോലികളാണ് എല്ലാവിടേയും ഉള്ളത് പക്ഷേ എല്ലാവരും ഈ ഗവൺമെന്റ് ജോലിക്ക് പിന്നാലെ ഓടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ അത് കിട്ടാ എല്ലാവർക്കും കിട്ടാൻ ഉള്ള ജോലി ഇല്ലല്ലോ ഗവൺമെന്റ് ജോലി അപ്പോൾ അത് കിട്ടാത്തവർ തൊഴിലില്ലായ്മയുടെ വക്കിലേക്ക് എത്തുകയും മറ്റ് ജോലിക്ക് പോകാനുള്ള അവരുടെ മടി കൊണ്ട് തന്നെ തൊഴിലില്ലായ്മയും വളരെ രൂക്ഷമായി തന്നെ പാലക്കാട് ജില്ലയിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്